എൻ്റെ ഉപജീവനമാർഗ്ഗം വൈദ്യുതിയെ ആശ്രയിക്കുന്നുണ്ട് അത് കാരണം എല്ലാ കാര്യങ്ങളും നിത്യ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ വൈദ്യുതി അത്യാവശ്യമാണ് പഠിക്കണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ് വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ് വെളിച്ചത്തിന് കാറ്റിന് അങ്ങനെ തുടങ്ങി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും വൈദ്യുതി ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് വൈദ്യുതി മുടങ്ങുമ്പോൾ വെളിച്ചത്തിനുള്ള മറ്റ് വഴികളെന്ന് പറയുന്നത് ഇൻവെർട്ടർ ബൾബുകളുണ്ട് മറ്റ് ഇൻവെർട്ടർ ബാറ്ററിയില്ല ഇൻവെർട്ടർ ബൾബുകളുണ്ട് അത് ആളുകൾക്കിവിടെ വീടുകളിൽ ഇൻവെർട്ടറുകളൊന്നും ഇല്ല അവർ ഇൻവെർട്ടർ ബൾബുകൾ മറ്റും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലും ഇൻവെർട്ടർ ബാറ്ററിയൊന്നും ഇല്ല അത് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലരും മെഴുക് തിരിയും അല്ലെങ്കിൽ ഇരുട്ടത്ത് ഇരിക്കുകയും വൈദ്യുതി വരുന്നത് വരെ കാത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്